ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ ഇന്റെഗ്രേറ്റടായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ മേഖലകളിൽ നല്ലൊരു പുരോഗതി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇന്നത്തെ കാലത്തിൽ നിങ്ങൾ ഒരു രണ്ട് ഡൊമൈൻസ് എടുക്കണം ഏത് ഡൊമൈൻ ആണെങ്കിലും ഇപ്പം ഒരു ഒരു മെയിൻ ഡൊമൈനും പിന്നെ ഒരു മൈനർ ഡൊമൈനും ആയിട്ട് എടുത്താലും മതി മൈനർ ഡൊമൈനിൽ ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ടെക്നിക്കലി സ്കില്ല് വളത്തുന്ന ഏതെങ്കിലും ഒരു ഡൊമൈന് സബ് ആയിട്ട് എടുത്തിട്ട് മെയ്നായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം റിസെർച്ച് ചെയ്യാൻ ഇപ്പം ബയോളജി സെൽസിനെക്കുറിച്ചുള്ള റിസെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മെയ്നായിട്ട് ബയോളജി എടുത്തിട്ട് പക്ഷെ ബയോളജി എടുക്കുക എന്നിട്ട് ടെക്നിക്കലി കൂടി അവർ ഇമ്പ്രൂവ്ഡ് ആകണം എന്നാലെ ഇന്നത്തെ കാലത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുളളൂ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള അല്ലെങ്കിൽ ഡാറ്റ സയൻസ് പോലുള്ള കോഡിങ് പോലുള്ള അങ്ങനത്തെ ഏതിലെങ്കിലും നന്നായിട്ട് ഒരു പ്രസക്തിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലും കൂടി ആ അവർ എടുക്കുമ്പോഴാണ് അവർ പഠനം തുടരുമ്പോഴാണ് നല്ല രീതിയിലവർക്ക് മുന്നോട്ട് വരാൻ പറ്റുക കാരണം ഇന്നത്തെ കാലത്തും ശാസ്ത്രം മാത്രം അല്ല സാങ്കേതിക വിദ്യകൾ കൂടി വളരെയധികം മാറി വരുന്ന ഒരു കാലമാണ് അപ്പോൾ അതും കൂടി നല്ല രീതിയിലായി കഴിഞ്ഞാലാണ് നന്നാവുക ഐ ഐ എസ് ടി പോലുള്ള കോളേജസ് ഐ ഐ എസ് ടി പിന്നെ ആ ബാംഗ്ലൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്സ് ഐ ബി എ ഇൻസ്റ്റിറ്റ്യൂട്സ് അങ്ങനെയുള്ള ഐ ഐ എസ് ടി പോലുള്ളതൊക്കെയാണെങ്കിൽ ഐസർ ഐസർ നൈസറും ഐസറും ഐസ് നൈസർ എന്ന് ഐസർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആണ് റിസർച്ചിന് വേണ്ടീട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ ഐസറോ ബംഗ്ലൂരുള്ള നൈസറോ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ് നല്ലൊരു പ്രൗഢമായ ഇൻസ്റ്റിറ്റ്യൂഷനെന്നതിനു പുറമെ നല്ലൊരു സർവ്വകലാശാല എന്നതിന് പുറമെ അവർ തരുന്ന ആ ഓപ്പർച്യുണിറ്റിസ് വിവിധമാണ് അത് കുറേ ഉണ്ട് അത് എല്ലാം നമ്മളെ കരിയറിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യുണിറ്റിസ് ആണ്